ഹലോ ഹോട്ടൽ വുഡ് ലാൻസല്ലേ ഞാൻ അങ്കമാലിക്കടുത്ത് മാങ്ങാട്ടുകരേന്നാന്ന് വിളിക്കുന്നത് എൻ്റെ വീട്ടിനടുത്ത് ശനിയാഴ്ച്ചയ്ക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിന് ഇരുപത്തി അഞ്ച് ആളോളം ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന് ആവശ്യമായ ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ചും ചോറ് മീൻക സോറി മാങ്ങാക്കറി അവിയൽ തോരൻ അങ്ങനെ ഒരു സദ്യ വട്ടിക്ക് വേണ്ട പതിമൂന്ന് ഐറ്റംസുൾപ്പെടെ അതിൻ്റെ മറ്റ് ഉപ ഉ ഉപാധികളെല്ലാം ഉൾപ്പടെ എനിക്ക് വേണം അതിന് നിങ്ങൾ ചാർജ് ചെയ്യുന്ന വിവരങ്ങളും അതിൻ്റെ ആ എന്ന് എത്ത് എത്തിച്ച് തരാൻ സാധിക്കുമോ അതിനുള്ള ദ് ഡീറ്റൈൽസുകൾ എന്നെ അറിയിക്കുക അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു താഴെ കറി താഴെ ഞാൻ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്